ഹലോ ആ എനിക്ക് ഒരു ലോണിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല അല്ല അല്ല ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സ്മോളാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു ലാർജാക്കൻ വേണ്ടിയിട്ട് ആ സ്മോൾ ബിസിനസ്സാണല്ലേ ഇപ്പോൾ തുടങ്ങുന്നത് പിന്നെ

എന്താ പറയുക ഈ ബോട്ടിക്ക് ഒക്കെ പോലെയില്ലേ ഡ്രസ്സ് ഡ്രെസ്സിൻ്റെ ആ മെറ്റീരിയൽ ആ മെറ്റീരിയൽസ് എടുത്തിട്ടും പിന്നെ അല്ലാണ്ട് ഹോൾസൈൽ ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ആ അപ്പം സെയിൽസ് ഓൾ ഇന്ത്യയാണ് അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക വെബ്സൈറ്റ് തുടങ്ങുന്നുണ്ട് അതുവഴിയായിട്ടാണ് എല്ലാം നടത്തുന്നത് അപ്പം ആ ഷോപ്പുണ്ട് പിന്നെ വെബ്സൈറ്റ് ത്രൂ ആണ് വെബ്സൈറ്റ് ത്രൂ ഉണ്ട് അല്ലാണ്ട് ഷോപ്പിട്ടിട്ടും ഉണ്ട് നമ്മൾ തുടങ്ങുന്നത് ആ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഡെലിവറി ഇപ്പോൾ വേറെ സ്ഥലത്തേക്കൊക്കെ ഡെലിവറി വെബ്സൈറ്റ് വഴിയാണ് അപ്പം ക്യാപിറ്റലായിട്ട്

ആ ഒരുമിച്ചു തരാം

അപ്പോൾ റെഡിമെയ്ഡും ഉണ്ട് മെറ്റീരിയൽസും ഉണ്ട് ആ അപ്പം എത്ര ശതമാനം പലിശയൊക്കെയാണ് വരുന്നത് ആ ഓക്കെ അപ്പോൾ ഒരു രണ്ട് നില ബിൽഡിങ്ങാണ് ഉദ്ദേശിക്കുന്നത് ഒരു ആയിരത്തഞ്ഞൂറ്

ആ ഓക്കെ അപ്പോൾ മന്തിലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാനാണോ ആ ഓക്കെ ട്വൻ്റി തൗസൻ്റാണോ അപ്പം ആ അല്ല അല്ല നമുക്ക് നമ്മുടെ എല്ലാ പ്രോപ്പർട്ടിയും വെക്കാൻ പറ്റുമോ ആ ഓക്കെ ആ അതെ അതെ ആ ഞാൻ നാളെ ബാങ്കിലേക്ക് വന്നാൽപോരെ

ആ ആ ഓക്കെ സാർ അപ്പോൾ ബാങ്കിൽ വന്നിട്ട് കാണാം